ഇന്ത്യൻ വിനോദ വ്യവസായം പറ്റി പുഷ്ടിപ്പെട്ടത് തന്നെ പാരമ്പര്യമായ കലാരൂപങ്ങൾ വഴിയാണ് നമ്മുടെ കഥ കഥകളി ഓ ഓട്ടന്തുള്ളല് മോഹിനിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ ജനശ്രദ്ധ ഏറെ പിടിച്ചുപറ്റിയ വിനോദരൂപങ്ങളാണ് അത് ക അത് ആസ്വദിക്കുവാനും അത് പഠിക്കുവാനുമായിട്ട് ധാരാളം വിദേശീയര് നമ്മുടെ കേരളത്തിലേക്ക് ഒഴുകി എത്തുന്നുണ്ട് വിനോദസഞ്ചാര വ്യവസായ മേഖലകളിൽ മറ്റൊരു പ്രധാനമായ ഒരു പ്രധാന മായൊരു വിനോദമാണ് വള്ളംകളി വള്ളംകളിയുടെ പാട്ടും മറ്റ് വള്ളസദ്യ ഒക്കെ ജന ജനഹൃദയങ്ങളിൽ എന്നും നിറഞ്ഞുനിൽക്കുന്ന കലാരൂപങ്ങളാണ് നമ്മുടെ സംഗീതമാണെങ്കിലും നമ്മുടെ എന്ത് എന്ത് തന്നെ ആണെങ്കിലും പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ ഏത് കലാരൂപങ്ങളാണെങ്കിലും അത് വിനോദസഞ്ചാരമേഖലയെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പോള് വിദേശീയരായ ജനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് വരുവാനും നമ്മുടെ കലാരൂപങ്ങൾ ഇഷ്ടപ്പെടുവാനും അവരതിൽ നിന്നും കൂടുതൽ പഠിക്കുവാനും താല്പര്യപ്പെടുന്നുണ്ട് നമ്മുടെ കലാരൂപങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ വളരെ പ്രാധാന്യം നൽകിയാണത് അവതരിപ്പിക്കുന്ന നമ്മുടെ കഥകളിയൊക്കെ വിദേശീയര് പഠിക്കുകയും അതിനെപ്പറ്റി റിസർച്ച് ചെയ്യേക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ കലാരൂപങ്ങൾ ഇപ്പോഴും നിറഞ്ഞ സദസ്സുകളിൽ ഒക്കെ കയ്യടി നേടി ഇപ്പോഴും നമ്മുടെ പാരമ്പര്യത്തെ മുറുകെപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു തനി തനിമയുള്ള കലാരൂപങ്ങളാണ് നമ്മുടെ ഈ കലാരൂപങ്ങൾ നമ്മുടെ വ്യവ വ്യവസായത്തെ ഒരുപാട് വളർത്തിയിട്ടുണ്ട് വ്യവസായ വിനോദസഞ്ചാര മേഖലയെ ഒരുപാട് വളർത്തിയ കലാരൂപങ്ങളാണ് നമ്മുടെ കഥകളിയും ഓട്ടൻതുള്ളലും നമ്മുടെ വഞ്ചി വള്ളംകളിയും ഒക്കെ നമ്മുടെ എല്ലാവിധത്തിലും നമ്മുടെ ഏത് കലാരൂപങ്ങൾ ആണെങ്കില് തന്നെ അത് നമ്മുടെ തനിമ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ മോഹിനിയാട്ടം ഭരതനാട്യം കഥക് തുടങ്ങിയ മറ്റു മറുഭാഷ കലാരൂപങ്ങൾ ആണെങ്കിൽ തന്നെ എല്ലാവിധ ഒരുപാട് വിനോദസഞ്ചാര മേഖലയിൽ വളരെയേറെ പ്രാധാന്യം നേടിയ ഒന്നാണ്